കൂടുതലായിട്ടും കുട്ടികള് കാ കായിക വിനോദങ്ങളില് ഏർപ്പെടുന്നുണ്ടോന്നക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഇല്ല കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ അവര് കൂടുതലായിട്ടും ഈ ഫോണിൻ്റെ മുന്നിലും ടിവിൻ്റെ മുന്നിലൊക്കെ ഇരുന്നിട്ട് അവടെയിങ്ങനെ ഇരുന്നിരുന്ന് അവര് അതിലേക്ക് മുഴുകിയിരിക്കുവാണ് അപ്പം അവർക്ക് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര പാടാണ് ഇപ്പോൾ എന്തെങ്കിലു ഒരു ക്രിക്കറ്റ്കളിയോ ഫുട് ബോള് കളിയോ അങ്ങനത്തെ എന്തെങ്കിലും നടന്ന് കഴിഞ്ഞാൽ പോലും അതൊന്നുവറിയണില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം അത് കൊണ്ടെക്കെ നല്ല രീതിലുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് നേരിടുന്നുണ്ടെന്ന് പറയാം മാനസിക പ്രശനങ്ങള് കാര്യങ്ങളക്കെ അത് വല്ലാണ്ട് അലട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് കുട്ടികളെ എങ്ങനെ പ്രചോദിപ്പിക്കാന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാല് ഇപ്പോ കുട്ടികളെ നമുക്ക് മാക്സിമം നമ്മുക്ക് എന്ത് ചെയ്യാം അവരെ ഇതിൽ നിന്ന് അതായത് ഈ മൊബൈൽ ഫോൺ അധികം കൊടുക്കാണ്ടിരിക്കുക ടീവിയൊക്കെ ചില സമയത്ത് ഓഫാക്കി വക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനെങ്കിൽ ഇപ്പം ചെറിയ കുട്ടികള് വരെ ഇപ്പോൾ ഒന്നോ രണ്ടോ വയസ്സിന് മുന്നേ നമ്മള് മൊബൈലക്കെ കാണിച്ച് കൊടുക്കുന്ന കൊണ്ടാണ് ഇവര് കൂടുതലായിട്ടും മൊബൈലിലേക്ക് മുഴകിയിരിക്കുന്നത് അപ്പ അതക്കെ നല്ല രീതിലുള്ള വ്യത്യാസം വരുത്തിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികള് പൊറത്തിറങ്ങി നല്ല രീതില് കളിക്കാനൊക്കെ നോക്കും